നമുക്ക് ഒരു ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രമേ നമുക്ക് അത് വരയ്ക്കാൻ സാധിക്കൂ ഏത് സമയവും നമുക്കൊരു ചിത്രം വരയ്ക്കാമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണമായും നമുക്ക് ആ ചിത്രം വരയ്ക്കാൻ കഴിയൂ അല്ലാണ്ട് നമ്മൾ വെറുതെ പോയിരുന്ന് വരച്ചാലും ഒന്നും നമുക്ക് ഒരു ചിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല ഒരു തോന്നൽ വേണം ആ ചിത്രം വരയ്ക്കാനുള്ള തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ചിത്രം ഭംഗിയായിട്ട് നമ്മൾ വിചാരിക്കുന്നതുപോലെ വരയ്ക്കാൻ സാധിക്കൂ പക്ഷേ മറ്റു ജോലികളെ സംബന്ധിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആ ജോലികൾ ചെയ്യാം ചിത്രം വര എന്നു പറയുന്നത് ഒരു തോന്നൽ വേണം ആ തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഏത് സമയത്തും ഏത് സമയത്തും തോന്നാം അങ്ങനെ ദിവസക്കണക്കായിട്ടൊന്നും ഇല്ല നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ തോന്നാം ആ തോന്നൽ ഉള്ളപ്പം മാത്രമേ ചിത്രം വരയ്ക്കാൻ പാടുള്ളൂ കാരണം പാടുള്ളൂയെന്ന് പറയാൻ കഴിയില്ല വരയ്ക്കാൻ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ ഒരു ചിത്രം നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അത് പെർഫക്റ്റായി വരണമെങ്കിൽ നമുക്ക് ആ ആ മനസ്സിലിരുത്തി നമ്മൾ വരയ്ക്കുന്ന ആ ചിത്രം ഭംഗിയായി നമുക്ക് അങ്ങനെ ആ തോന്നലിലൂടെ മാത്രമേ സാധിക്കൂ